കൂടുതലും ഗെയിം കളിക്കുന്നത് ഈ വായനശാലയിൽ വന്നു കുട്ടികൾ കാരം ബോർഡ് കളിക്കും അതുപോലെ ചെസ്സ് കളിക്കും അതുപോലെതന്നെ ഫുട്ബോൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാവും അതിൽ ജയിക്കുന്നവർക്കു ട്രോഫിയും കൊടുക്കുന്നുണ്ട് ഓണപ്പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ട് മിഠായി പെറുക്കൽ ഇന്ന ഇന്ന പ്രായം എന്നില്ല കുട്ടികൾക്ക് കൂടുതലും വലിയ കുട്ടികളും എല്ലാ വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും കളിക്കാൻ പറ്റും മിഠായി പെറുക്കലും ബലൂണ് പൊട്ടിക്കൽ വടംവലി ബിസ്ക്കറ്റ് കടി വെള്ളംകുടി മത്സരം അങ്ങനെ കുറേ കളിക്കും അതിൽ ജയിക്കുന്നവർക്കൊക്കെ സമ്മാനം ഉണ്ട് എല്ലാവർക്കും സമ്മാനം കൊടുക്കും അതുപോലെ പഠനത്തിന് മാത്രം ഇരുന്നു കഴിഞ്ഞാൽ ആൾക്കാരോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വായനശാലകളിലൊക്കെ ഓരോ ഗെയിംമും ടൂർണമെൻ്റൊക്കെ നടത്തുന്നത് ആൾക്കാരുമായിട്ട് ഉണ്ടാവും കമ്മിറ്റ്മെൻ്റും ഉണ്ടാവും അതുപോലെതന്നെ നമുക്ക് ഇതാക്കാനുള്ള സമയവും ഉണ്ടാവും പിന്നെ അതുപോലെ എല്ലാവരോടും ഒത്തുകൂടി ഇതാക്കാൻ എന്താവശ്യത്തിനും ആൾക്കാരെയൊക്കെ അറിയും അതേപോലെ എല്ലാവരോടും പരിചയം ഉണ്ടാവും അതേപോലെ ഇടക്കിടയ്ക്ക് കടയിലൊക്കെ വന്നിരിക്കും അതേപോലെ നമുക്കൊരു ആശ്വാസമാണ് കാരം ബോർഡ് അങ്ങനത്തെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പം